എട്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എഴുനൂറ്റി എൺപത്തി അഞ്ച് ആറ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് അഞ്ച് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തിഎട്ട് ഒരു ലക്ഷത്തി ഇരുപത്തിഅയ്യായിരം